എനിക്ക് ഒരു ഇയർ ബഡ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂട അപ്പോൾ ആ ഒരു ഇയർ ബെഡ് വാങ്ങിക്കാനാണ് നീ വാങ്ങിച്ചിട്ടുണ്ടോ ഇയർ ബെഡ് അപ്പോൾ അതിന് എത്ര രൂപ ഇയർ ബെഡ് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ ആകും പക്ഷെ നീ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞു തരുകയാണെങ്കിൽ എനിക്ക് അത് വാങ്ങിക്കാമായിരുന്നു പക്ഷെ അതിന് അതിൻ്റെ ചാർജ് ഇയർ ബെഡിൻ്റെ ചാർജർ അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ ആ ചാർജറിനും അഡിഷണൽ ബില്ല് നമ്മൾ കൊടുക്കേണ്ടി വരുമോ അപ്പോൾ ഒരു ഏകദേശം എത്ര രൂപായൊക്കെ ആവും ഒരു ഇയർ ബെഡിന് തും പിന്നെ നീ വാങ്ങിച്ചിട്ടുണ്ടോ നിനക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ അപ്പഴ് ഉണ്ടോ അറിയാമെങ്കിൽ എനിക്ക് ഒന്ന് പറഞ്ഞു തരുകയാണെങ്കിൽ ഞാൻ ഇയർ ബെഡ് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊൾ അതെനിക്ക് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരം പ്രദമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അത് ഇയർ ബെഡ് തന്നെയല്ല അതിൻ്റെ ചാർജറ് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ അതെ അതിൻ്റെ പ്രോസീജിയറും കാര്യങ്ങളുമൊക്കെ നീ ചോദിച്ച് വിശദമായിട്ട് അറിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ വിളിച്ച് പറയാമോ നിനക്ക് നിൻ്റെ അറിവിൽ അത് ഉണ്ടെങ്കിൽ എന്നോട് അത് പറഞ്ഞു തരാമെങ്കിൽ വലിയ ഒരു ഉപകാരപ്രദമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഞാൻ നോരോരുത്തരോട് ഇങ്ങനെ വിളിച്ച് അന്വേക്ഷിക്കുന്നുണ്ട് പക്ഷെ അന്വേക്ഷിച്ചിട്ട് പത്ത് പേരോട് ചോദിച്ചാലല്ലെ ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കും ചോദിച്ചിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് എനിക്ക് നിന്നെ മനസിലാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസിലാക്കിയിട്ട് എനിക്ക് അതൊന്ന് പറഞ്ഞു തരുമെങ്കിൽ വലിയ ഉപകാരപ്രദമായിരുന്നു നിനക്ക് രണ്ടിനും കൂടെ അതൊരെണ്ണം വാങ്ങിക്കാമായിരുന്നു വാങ്ങിച്ചിട്ട് അതിൻ്റെ ഈ ചാർജറും ഇയർ ബെഡ്ഡും ഇവിടെ കിട്ടുക ആണെങ്കിൽ നമുക്ക് അത് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്കൊണ്ട് നമ്മൾ രണ്ടു പേരും എനിക്ക് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരം അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇട്ടുതന്നാൽ വലിയ ഉപകാരപ്രദമായിരുന്നു എന്ന് തോന്നുന്നു അതാ അതിന് വേണ്ടിയിട്ടാണ്